നമ്മളിപ്പോൾ എല്ലാവരും വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ചില സാഹചര്യത്തിൽ നമുക്ക് വാടകയ്ക്ക് മാറാനോ അല്ലെങ്കിൽ വീട് സ്ഥലം വിറ്റ് പോകുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാറുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവുന്ന ഒരു സംഭവം ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് നമുക്കിതിന് ബുക്കിങ്ങിന് നമുക്ക് കിട്ടുന്നത് ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കെന്തെല്ലാം ചെയ്യും ഡെലിവറി എന്താ പഴയ സ്ഥലത്താണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ സ്ഥലത്തു തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ കടകളിലോ നമുക്കത് ലഭ്യമാകും പുതിയ സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്കിത് കിട്ടും അപ്പോൾ നമ്മളത് ഏജൻസിയിൽ വിളിച്ചു നമ്മൾ മാറിയ സ്ഥലമൊക്കെ തീരുമാനിച്ച് അവരുടെ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ എവിടെയാണെന്നുള്ള ഒരു ഡീറ്റെയില് കൊടുത്താൽ ഒരു കൃത്യം അവിടെക്കൊണ്ട് എത്തിച്ചു നമുക്ക് തരാറുണ്ട് പിന്നെ ആ പിന്നെ ആധാർ നമ്പറും മാറിയ സ്ഥലവും അഡ്രസ്സുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവർ എത്തിച്ചു തരും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്നത് ഗ്യാസില്ലാണ്ട് നമുക്ക് ഒരു ദിവസംപോലും പറ്റത്തില്ല നമ്മൾ മാറിയ സ്ഥലം പെട്ടന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും മാറി ഇനി വണ്ടി ചെല്ലാത്തൊരു സ്ഥലത്താണ് താമസം അല്ലെങ്കിൽ കുടുസിലേക്കോ അങ്ങനെയെങ്കിലൊക്കെ മാറുമ്പോൾ നമുക്ക് സൗകര്യമുള്ള സ്ഥലത്തുതന്നെ കിട്ടണമെന്നില്ല നമ്മൾ ചിലപ്പം ദൂരസ്ഥലത്തേക്ക് ഒക്കെ ആയിരിക്കും മാറുന്നത് അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്കിതെങ്ങനെ കിട്ടും നമ്മളെങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ഏജൻസിയുമായിട്ട് ബന്ധം എല്ലാത്തിനും ഒരു ബുക്കിംഗ് നമ്പർ ഉണ്ടല്ലോ ആ ബുക്കിംഗ് നമ്പറ് വിളിച്ചു നമ്മൾ അവരെ ബന്ധപ്പെട്ടു കഴിയുമ്പോൾ അവർ നമ്മൾക്ക് ശരിയായ നിർദ്ദേശം തരും അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസിയെ ബന്ധപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കത് സ്ഥലം സമയത്ത് കിട്ടും